ഇപ്പോഴത്തെ കാലത്ത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ സത്യമാണോ അതോ കള്ളമാണോ എന്നറിയാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കാരണം ഒരു സംഭവിച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വാർത്തകൾ വ്യാജമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടിത്തന്നെയാണ് ഈ ലോകത്ത് വാർത്തകളെല്ലാം വ്യാജമായി മാറുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ടത്തെ കാലത്ത് ആണെങ്കിൽ ടി വി യിലൂടെ മാത്രമാണ് ഒന്നോ രണ്ടോ ചാനലുകളിൽ കൂടെ മാത്രമാണ് ആ വാർത്തകൾ പുറത്തുവരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല സ്വന്തമായിട്ടുതന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ ഒത്തിരി വ്യാജ വാർത്തകൾ പുറത്തുവരുന്നുണ്ട് അപ്പം തന്നെ ഒരു വാർത്ത പുറത്തുവരുമ്പോൾ അത് സത്യമാണോ അതോ വ്യാജമാണോ എന്നുതന്നെ അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല അവിടെപ്പോയി അത് ന്യൂസ് ചാനലുകൾ ആണെങ്കിലും അവിടെപ്പോയി സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് സത്യമാണോ വാർത്ത കള്ളമാണോ എന്നൊന്നും ഇപ്പോൾ തന്നെ ഒത്തിരിയൊത്തിരി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൂടെ നടന്നുപോകുന്നുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എന്തോ അമ്മ മാ എന്ന സ്ഥലത്ത് ഒരു ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊന്നു അത് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി അത് വേറൊരു രീതിയിലാണ് അവർ അവതരിപ്പിച്ചത് അതുപോലെത്തന്നെയാണ് ഒരു ഇവിടെ നടന്ന ഒരു സംഭവം ആയാലും നമ്മൾ കാണുന്നത് സത്യമാണോ അത് കള്ളമാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്വന്തമായിട്ട് തന്നെ പോയി അവിടെനിന്ന് ഓരോന്ന് കണ്ടിട്ട് അവരുടേതായ രീതിയിൽ തന്നെ ആ വാർത്തകൾ വളച്ചൊടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്